ഹലോ തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തല്ലേ ഇവിടെ ഞാന് പാര്ക്കില് ഞാന് എന്റെ ഡോഗും നായയുമായിട്ട് വന്നതായിരുന്നു ഇവിടത്തെ വേസ്റ്റ് ബിന്നുകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് വേസ്റ്റെല്ലാം തൊട്ടടുത്തൂടി എല്ലാം കെടന്ന് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് നിങ്ങളിത് മാറ്റാനുള്ള ഒരു സംവിധാനം ചെയ്യണ്ടേ ക്ലീൻ കേരളാ മിഷന്റെ ഇതില് സ്റ്റാഫിനെ ഇപ്പോൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ഒരു നടപടി പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം കേട്ടോ വരുന്ന ആളുകളെല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു അതുകൊണ്ട് എന്തുമാത്രം രോഗങ്ങളൊക്കെ ഉണ്ടാകും അക്കാര്യത്തില് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്ക് കേട്ടോ ഓക്കേ